പത്ത് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി നാല് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിനാല് പത്ത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് പന്ത്രണ്ട് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇരുപത്തി രണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത്